എനിക്ക് ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടായി അപ്പം നമ്മള് ഇത്രയും വലിയ ഒരു ഓര്ഡര് അല്ലായിരുന്നോ അപ്പം നമുക്ക് കുറച്ച് പിന്നെ വല്ല കൂപ്പണോ അല്ലെങ്കില് പ്രൊമോ കാര്ഡോ തരുവാണേല് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുവല്ലോ അതുകൊണ്ടാണ് വലിയ ഓര്ഡറില് നമുക്ക് കുറച്ച് കിഴിവ് വേണമല്ലൊ സാധാരണ നമ്മള് ഇത്രയും ഒരു ഒരു പ്രോഗ്രാമിന് ഇത്രെയും എമൗണ്ട് കൊടുത്ത് ഇത്രെയും ഹ്യൂജ് ആയിട്ട് നിങ്ങള് ഇതാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് തരുവാണേല് അടുത്ത പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് വന്നു ആവശ്യപ്പെടാന് പറ്റുള്ളൂ അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഇവിടുന്നു തന്നെ അല്ലെങ്കില് നമ്മുടെ ഫ്രണ്ട്സിനോ നൈബേഴ്സിനൊക്കെ നമുക്ക് ഇവിടേക്ക് സജസ്റ്റ് ചെയ്യാലോ നമുക്ക് ഒന്നുങ്കിൽ ഉണ്ടാകുവോ അതായത് നമ്മള് എന്തായാലും ഇത്ര പൈസ അടയ്ക്കുന്നു കുറച്ചൊരു ഡിസ്കൗണ്ട് കിട്ടുവായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു